ഇപ്പോൾ ഗതാഗത രീതിയെ കുറിച്ച് ഞങ്ങക്ക് മുമ്പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ട്രെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർത്ത് അങ്ങൻത്തെ അതായത് കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രെയിൻ യാത്രാന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റിയായിട്ടുള്ള സ്ഥലം സാധാരണ ബസ് അല്ല ബൈക്ക് അങ്ങനത്തെ പോലെയല്ല ട്രെയിൻ യാത്രക്കെന്ന് പറയുമ്പോൾ നമുക്ക് മെയിന് ആയിട്ട് ഇപ്പം ഈ എന്താ പറയുക ഷോട്ട് കട്ടുകൾ കണ്ടുപിടിക്കുന്ന കാരണം കൊണ്ട് അധികവും ഈ തുറസ്സായ സ്ഥലങ്ങൾ അല്ലാണ്ട് ഇപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളി കൂടെ പിന്നെ നമുക്ക് അത്യാവശ്യം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും വെള്ളച്ചാട്ടം അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ കൂടുതലായിട്ടുള്ള പാടങ്ങള് കുന്ന് മല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് കൂടുതല് പറ്റുന്നത് ഈ ട്രെയിൻ ട്രെയിനില് പോകുമ്പോഴാണ് നിർത്തി ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റില്ലങ്കിലും പക്ഷെ നമുക്ക് എല്ലാ സംഭവവും കണ്ടാസ്വദിക്കാം വീഡിയോ എടുക്കാൻ പറ്റും എന്താ പറയുക അവിടെ കൂടുതൽ കുറെ നേരം കണ്ട് ആസ്വദിക്കാൻ പറ്റും പിന്നെ വലിയ വലിയ ഈ പാലങ്ങള് കണക്ട് ചെയ്ത പാലങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ പുഴകള് പോകുമ്പോൾ ഈ നോർത്ത് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ടും വലിയ പുഴകളായിരിക്കും അപ്പോൾ അതിന് വലിയ പാലങ്ങളായിരിക്കും അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ടാകും പിന്നെ വെള്ളച്ചാട്ടങ്ങള് ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടിപോകുമ്പോൾ ആ ഒരു സൗ പ്രത്യേക തരത്തിലുള്ള സൗണ്ട് പിന്നെ കാറ്റ് അപ്പോൾ നമുക്ക് ഈ എനിക്ക് അതിനെ കുറിച്ച് എന്താ പറയുക കൂടുതലായിട്ടും താല്പര്യം തോന്നിയിട്ടുള്ളത് ട്രെയിൻ യാത്രയാണ് പിന്നേ അവിസ്മരണീയമായിട്ടുള്ളത് എന്ന് പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൽഹിക്ക് പോയ ഒരു ട്രിപ്പിനെ കുറിച്ചാണ് കൊങ്കൺ റെയിൽവേൻ്റെ അതുവഴി ഡൽഹിക്ക് അല്ല മുംബൈക്ക് പോയത് അത് ശരിക്കും നല്ല അടിപൊളി എന്താ പറയുക ശരിക്കും ഒരു കാണേണ്ട റെയിൽ പാത അല്ലെങ്കിൽ ആ റൂട്ട് ശരിക്കും കാണേണ്ടതാണ് അത്രയധികം ടണലും കാര്യങ്ങളൊക്കെയുണ്ട് വെള്ളച്ചാട്ടങ്ങള് അങ്ങനെ പലതും ഭംഗി നമുക്ക് അതായത് ആ റൂട്ട് അത്രയും അടിപൊളി റൂട്ടാണ് ഇപ്പൊ ഇന്ത്യയി തന്നെ അറിയപ്പെടുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു റൂട്ടാണ് നമ്മുടെ കൊങ്കൺ പാത അത് കൂടപ്പോയത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്